ഹലോ അതെ അല്ലോ ആ ഇന്ന് മുതൽ ഇന്ന് ഇച്ചിരി ലേറ്റ് ആയിട്ടേ വരാന് പറ്റുകയുള്ളൂ മേഡം കുഴപ്പമുണ്ടോ അതേ എന്തൊക്കെ പണിയായിരുന്നു ചെയ്യാൻ ഉള്ളത് ആ അങ്ങനെയൊക്കെ ആ അപ്പം ഞാന് രാത്രിയും ഞാന് വേണമെന്നുണ്ടോ ആ ഫുള് സമയം രാവിലെ തൊട്ട് അല്ലേ ആ ഫുഡൊക്കെ ഉണ്ടാക്കുന്നതോ ആ എത്ര മെമ്പേഴ്സ് ഉണ്ട് എത്ര ആള്ക്കാർ ഉണ്ട് വീട്ടിൽ രണ്ട് ആ അവർ എല്ലാവരേയും നോക്കണം അല്ലേ അപ്പച്ചനും അമ്മച്ചിയെക്കെ കിടപ്പ് രോഗികൾ വല്ലതും ആണോ ആ ഫുഡ് ഉണ്ടാക്കി കൊടുത്ത് ബാക്കിയുള്ളവരെയൊക്കെ നോക്കിയാൽ മതി അല്ലേ ആ ആ ഹാ ഹ പഠിക്കുന്നതൊക്കെ പിള്ളേർ പഠിക്കുന്നതൊക്കെ ആണോ പഠിച്ചോളുവോ ചെറിയ കുട്ടികളാണ് അവരെ കുളിപ്പിക്കാന് കാര്യങ്ങളും എല്ലാം ചെയ്യണം അല്ലേ അവർ കഴിക്കാനൊക്കെ മടിയുള്ളവർ ആണോ അതോ തന്നെ കഴിച്ചോളു ഒക്കെ ചെയ്യുമോ അതെ അല്ലെ ആ ടിവിയൊക്കെ വച്ചു കൊടുത്തൊക്കെ കഴിപ്പിക്കുമായിരിക്കും അല്ലേ ആ ഹാ എങ്ങനെയാണ് ശമ്പളം ഒക്കെ എന്നതാണ് തരാന് ഉദ്ദേശിക്കുന്നത് ഇരുപത്തി അയ്യായിരം ഇടയ്കൊക്കെ ഇച്ചിരി ബോണസൊക്കെ വല്ലതും തരണം കേട്ടോ മേഡം ഞാനൊന്നും ഇല്ലാത്ത ഇടത്തെയാണ് ഹാ ആ ആ ആ എന്റെ വീട്ടിൽ എനിക്ക് അത്യാവശ്യമൊക്കെ വന്നാൽ തരുമല്ലോ അല്ലേ എന്റെ വീട്ടിൽ അച്ഛൻ അമ്മ ഒരു കൊച്ചുണ്ട് ആ കൊച്ചിനെ അച്ഛനും അമ്മയും നോക്കിക്കോളും ആ ഹാ അപ്പം എത്ര ദിവസം അവധി കിട്ടും ഒരു മാസം രണ്ട് ദിവസത്തെ അവധി അല്ലെ ഇത് കറക്റ്റ് സ്ഥലം എവിടെ ആയിരുന്നു ആ തോപ്പ്രാംകുടിയിൽ ആണ് അല്ലേ ആ ഹാ ആ ഞാന് കട്ടപ്പനയാണ്

ഞാൻ ഡെയിലി പഠിച്ചതായിരുന്നു ആ പിന്നെ എനിക്ക്

അവരൊക്കെ എന്നേലും മെഡിസിനൊക്കെ കഴിക്കുന്നവരാണോ ആ അതൊക്കെ നമ്മൾ നമ്മൾ സാധനങ്ങൾ കടയിൽ പോയി ഞാന് തന്നെ വാങ്ങിക്കണം എന്നുണ്ടോ ആ ആരെങ്കിലും ആ അപ്പം ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ആ അപ്പം ഈ കുട്ടികളെയൊക്കെ നോക്കാനൊക്കെ ബുദ്ധിമുട്ടാവുകയില്ലേ അതെയോ ആ എങ്കിൽ പിന്നെ കുഴപ്പം ഇല്ല ചെടികളൊക്കെ ഒത്തിരി ഉണ്ടോ നനയ്ക്കാനൊക്കെ

മ്മ് ഹും ആ ഉറങ്ങുന്ന സമയത്തൊക്കെ നനച്ചു അഡ്ജസ്റ്റെ് ചെയ്തു നനച്ചോളാം ആ ഹാ ആ ഫോണ് എന്റെ വീട്ടിലേക്ക് എനിക്ക് ഫോണ് വിളിക്കുന്നതിന് കുഴപ്പം ഒന്നും ഇല്ലല്ലോ അല്ലെ അല്ല പിള്ളേർ ആ അല്ല അവരെയൊക്കെ നോക്കിയിട്ട് ആഹാ ആ ഈ രാവിലെ എഴുന്നേൽക്കുന്നതിനും കിടക്കുന്നതിനും സമയമൊക്കെ ഉണ്ടോ ആ ഹാ

ആ എന്നാ ഫുഡ് ഉണ്ടാക്കുന്നതും കൊച്ചിനെ നോട്ടവും എല്ലാം കൂടെ നടക്കുന്നത് എങ്ങനെയാണോ നമുക്ക് നോക്കാം ആ അതെയോ ആ മേഡം വീട്ടിൽ ഉള്ളതാണ് അല്ലേ ആ അപ്പം കുഴപ്പമില്ല രാവിലെ ഉണ്ടാക്കാം അന്നേരം കൊച്ചിനെ ഒക്കെ നോക്കിക്കോളുമല്ലോ ആ രാവിലെ ആ ആറ് മണിയാവുമ്പം വരും അല്ലെ ആ അങ്ങനെയാവുമ്പം പിന്നെ കുഴപ്പമില്ല ആ ഹാ ആ അല്ലെ ഫുഡ് ഉണ്ടാക്കലും പിള്ളേരെ നോക്കലും എല്ലാം കൂടി ശമ്പളം കുറവല്ലേ എന്നെനിക്കൊരു സംശയം ആ ഒരിച്ചിരിയും കൂടെ കൂട്ടി തരുവായിരുന്നെങ്കിൽ ഞങ്ങൾക്കും പ്രാരാബ്ദം ആ അത് ചെയ്യണം അങ്ങനെ വാക്കാൽ പറയരുത് ഞാന് പലയിടത്തും പോയിട്ട് ഇങ്ങനെ വാക്കാൽ പറഞ്ഞിട്ട് ഒന്നും കിട്ടാറില്ല അതുകൊണ്ട് പറഞ്ഞതാണ് അതെ അല്ലെ എന്നാണെങ്കിലും ഉറപ്പാണല്ലോ അല്ലെ

ഓണത്തിനൊക്കെ തുണി എടുത്ത് തരണം മേഡം ആ ആ അതൊക്കെ തരുമെങ്കിൽ ആ ഞാന് നേരത്തെ നിന്നടത്തൊക്കെ ഇരുപത്തി ഏഴ് ഉണ്ടായിരുന്നു ആ അതൊക്കെ ഇടയ്ക്ക് തുണിയൊക്കെ കിട്ടുമായിരുന്നു ആ ഒന്ന് സംസാരിച്ചു നോക്ക് ആ എനിക്ക് കുറച്ചു കടങ്ങളൊക്കെ ഉണ്ട് ബാങ്ക് കടങ്ങളൊക്കെ മാസം മാസം അടയ്ക്കേണ്ടതാണ് അല്ലെങ്കിൽ പിന്നെ ജപ്തി ചെയ്യുമെന്നൊക്കെയാണ് അവർ പറയുന്നത് എങ്ങനെ എങ്കിലും ഒന്ന് നോക്ക് എനിക്ക് ഇരുപത്തി ഏഴ് കിട്ടിക്കൊണ്ടിരുന്നത് ആയതുകൊണ്ട് പെട്ടെന്ന് കുറവ് വരുമ്പോഴത്തേക്കും അതിന്റെതായ ബുദ്ധിമുട്ട് എനിക്ക് ഉണ്ടാവും അവിടെ നിന്ന് ഞാന് പോരുക അല്ലായിരുന്നു ദൂരം ആയതുകൊണ്ട് പിന്നെ പോന്നതാണ് ആ പിന്നെ അവർ കിടപ്പിലെങ്ങാനും ആയാൽ എന്നെക്കൊണ്ട് അങ്ങനെ ഇപ്പം ഈ ശമ്പളത്തിൽ നോക്കാന് പറ്റത്തില്ല കേട്ടോ ആ ആ അല്ല നമ്മൾ പറഞ്ഞിട്ട് വേണമല്ലോ ആദ്യം പറഞ്ഞിട്ട് വേണമല്ലോ കയറാന് പിന്നീട് പിന്നെ ഇതൊന്നും നടക്കുകയില്ലല്ലോ അതുകൊണ്ട് പറഞ്ഞെന്നേ ഉള്ളു കേട്ടോ മേഡത്തിന് ഇതൊക്കെ ബുദ്ധിമുട്ടായോ അല്ല മേഡത്തിന് ഇതൊക്കെ ചോദിക്കുന്നത് ബുദ്ധിമുട്ടായോ എന്ന് മേഡം എന്ത് ജോലിയാണ് ചെയ്യുന്നത് നേഴ്സ് ആണോ ഹോസ്പ്പിറ്റലിൽ വല്ല ജോലിയും കിട്ടുമോ എനി ക്ക് അങ്ങനെ വല്ലതും കിട്ടുമോ എനിക്ക് സെക്യുരിറ്റിയാണ് വേണ്ടത് സെക്കൂരിറ്റി ഞാൻ ഒന്ന് വന്നു നോക്കട്ടെ കാരണം എനിക്ക് എനിക്ക് പെണ്ണുങ്ങൾ അല്ലേ എനിക്ക് പേടിയാണ് എല്ലായിടത്തും ഇങ്ങനെ പോയി നിൽക്കാൻ അല്ല അത് നമുക്ക് പറയാന് പറ്റത്തില്ലല്ലോ മറ്റുള്ള വീടുകളൊക്കെ ആവുമ്പോൾ അവിടെ ആരൊക്കെ വരും എങ്ങനെയൊക്കെ ആണെന്നൊന്നും നമുക്ക് അറിയത്തില്ലല്ലോ ഞാന് പറഞ്ഞെന്നേ ഉള്ളു കേട്ടോ ആ അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല ആ ഹസ്ബൻ്റൊക്കെ വരുമ്പം എനിക്ക് ലീവ് എടുത്തൊക്കെ പോരത്തില്ലേ കുറച്ചു ദിവസത്തേകൊക്കെ ആ ഞാൻ ഒരു മൂന്ന് നാല് മാസം നിന്നിട്ട് എനിക്ക് എങ്ങനെയാണ് നോക്കട്ടെ നിന്നിട്ട് ശരിയാവുമോ ഇല്ലയോ എന്ന് മൂന്ന് നാല് മാസം കഴിയുമ്പം ഞാന് പറയാം